ഹലോ ഹലോ ഇത് നൂറ്റി ഒന്നിലെ കസ്റ്റമറാണെ ഫുഡ് ഓഡർ ചെയ്യാൻ വിളിച്ചതാണെ എന്തൊക്കെയുണ്ടവിടെ ചിക്കൻ നൂഡിൽസും കുഴിമന്തിയും ഓക്കെ ചോറുണ്ടോ എ എന്നാൽ കറികൾ ഓക്കെ ഫിഷ് ഓക്കേ ഫിഷ് എന്തൊക്കെയാണ് ഉള്ളത് ഫിഷ് ഒരു കുഴിമന്തി ചോറ് ഫിഷ് ഓക്കെ ഐസ് ക്രീം ഏതൊക്കെ ഫ്ലേവറാണുള്ളത് ബട്ടർസ്ക്കോച്ചും വാനിലയും ഓക്കെ വാനിലയും കുടിക്കാൻ പിന്നേ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ഓക്കെ ആ ഒരാൾക്ക് സാലഡ് ഐറ്റംസ് ആ ആ അച്ചാറും സാലഡ് സാലഡും കൂടെ എടുത്തേക്ക് പിന്നൊഴിക്കാന് ഓക്കെ വേ പൊറോട്ടയും വെറോട്ടയും ചപ്പാത്തിയുമോ പൊറോട്ടയും ചിക്കൻ ഫ്രൈയ്യും ആ കസ്റ്റമേഴ്സ് വരുമായിരിക്കും വൈക്കോട്ടെ വിസിറ്റേഴ്സ് വരുമായിരിക്കും അപ്പം കുറച്ച് മൂന്നെണ്ണം കൂടുതൽ വിട്ടോ ഓക്കെ ആ ഒന്ന് ഐസ് ക്രീമും ആ ഓക്കെ അതു മാത്രം മതി റേയ്റ്റെത്രയാണ് കുഴിമന്തിയുടെയും ചിക്കൻ ചിക്കൻ ചിക്കൻ നൂഡിൽസിൻറ്റേയും കുഴിമന്തിയുടെയും ചിക്കൻ നൂഡിൽസിൻ്റെ ഓക്കേ ആ കുഴിമന്തി ഓക്കെ ഐസ് ക്രീം ഓക്കെ ഓക്കെ ആ എന്നാൽ ശരി എന്നാൽ ഐസ് ക്രീമും ജൂസുമൊഴിച്ച് ബാക്കിയെല്ലാം ചൂടോടെ എത്തിക്കണം ഓക്കെ അര മണിക്കൂറിനകത്ത് എത്തിച്ചേക്കണേ ഓക്കെ ആ ഓക്കെ ഓക്കെ ടാങ്ക് യൂ